ഞാൻ രാവിലെ ആണ് സാധാരണ ഓടല് വൈകുന്നേരം സ്കൂള് വിട്ട് വരുന്നേയ്ൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ക്ഷീണം കാരണങ്ങളുണ്ടായത് കൊണ്ട് ഓടാറില്ല രാവിലെ ഞാനും എൻ്റെയൊരു നാലഞ്ച് സുഹൃത്തുക്കളും നാല് കിലോമീറ്ററ് അങ്ങോട്ട് നാല് ഇങ്ങോട്ടുമായി ഓടാറുണ്ട് എന്നും സ്ഥിരമായിട്ട് ഓടാറുണ്ട് എല്ലാ ദിവസവും ആഴ്ച്ചയിൽ ഏഴ് ദിവസവും ഞങ്ങളോടാറുണ്ട് പിന്നെ സ്പ്രിൻടിങ്ങിന് വേറെ പ്രാക്ടീസ് ഗ്രൗണ്ടില് വേറെ പ്രാക്ടീസ് ഞാനും എൻ്റെ വേറെ ചങ്ങാതിയും കൂടി ഒപ്പം പ്രാക്ടീസ് ചെയ്യാറുണ്ട് കാരണം കായികയിനത്തിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാന് പിന്നെ എല്ലാ ദിവസവും എന്താണ് ഓടാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാല് ഞാന് സ്പോർട്സിന് ഓട്ടത്തിനോക്കെ പങ്കെടുക്കുന്ന ആളാണ് ഞാന് സബ് ജില്ലയില് ഒന്നാം സ്ഥാനം സ്പ്രിൻടിന് നൂറ് മീറ്റ്റ് നാന്നൂറ് മീറ്റ്റ് പിന്നെ നാല് ഇൻടു നൂറ് റിലേക്കൊക്കെ ഒന്നാം സ്ഥാനം സബ് ജില്ലയിൽ നേടിയിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ നൂറ് മീറ്ററ് രണ്ടാം സ്ഥാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിലിനി നേടണം അതിന് വേണ്ടി പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഞാന് അതുകൊണ്ട് എന്നും ഞാന് ഓടും എന്നും സ് സ്റ്റാമിന കൂടാൻ വേണ്ടിയിട്ട് എന്നും ഒരു നാല് കിലോമീറ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയായിട്ട് ഓടും പിന്നെ സ്പ്രിൻടിന് വേണ്ടി വേറെ എക്സസൈസും ഇതും പിന്നെ സ്പ്രിൻടിങ്ങും ഒക്കെ നടത്താറുണ്ട് ഗ്രൗണ്ടില് ഇതൊക്കെയാണ് ചെയ്യാറ് ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരും ഒപ്പം ഉണ്ടാകലുണ്ട് ഓടുമ്പം നമുക്ക് സ്റ്റാമിന കൂടും ഫിറ്റ്നസ്സ് ഒക്കെ നല്ലൊരു കാര്യമാണ് ഈ ഓട്ടം എന്ന് പറയുന്നത്